നീന്തൽ പഠിക്കുന്നൊരാളെ സംബന്ധിച്ച് അയാൾ വളരേ സൂക്ഷ്മമായിട്ട് പഠിക്കണമെന്നാണ് എൻ്റെ ഒരഭിപ്രായം കാരണം വെള്ളമെന്ന് പറയുമ്പോൾ അതിനടിയിൽ പോയി ക്കഴിഞ്ഞാല് പിന്നെ നമക്കോക്സിജൻ കിട്ടുന്നില്ല ഓക്സിജൻ കിട്ടാതൊരു മനുഷ്യന് ജീവിക്കാനും സാധിക്കത്തില്ല അപ്പോള് ആ ഒരു വ്യക്തി നീന്തൽ പഠിക്കുന്ന വ്യക്തി വെള്ളത്തിനടിയിലും ഒക്കെ സാദ സർഫിങ്ങിനൊക്കെ പോകുമ്പോൾ അവര് വളരെ നല്ല സൂക്ഷ്മതയോടെ പോകണം നീന്തൽ പഠിക്കുമ്പോള്ത്തന്നെ അവര് ചെയ്യണ്ട കാര്യമെന്നു പറഞ്ഞാൽ അവരത് വളരെ അറിയുന്നൊരാളോട് പോയി വളരെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചോണ്ടാണവർ നീന്തൽ പഠിക്കേണ്ടത് നീന്തൽ പഠിച്ച് കഴിഞ്ഞൊരു വ്യക്തിയില്നിന്ന് നല്ല പഠിച്ച് നല്ല ട്രെയിനിങ്ങോടെ പഠിച്ച ഒരു വ്യക്തിയിൽനിന്നും പോയി പഠിക്കുന്നതായിരിക്കും ബെറ്റർ അതും നല്ല സ്വിമ്മിങ്ങ് പൂളുകളിൽപ്പോയി നീന്തൽ പഠിക്കുന്നതായിരിക്കും നല്ലത് ഒഴുക്കുള്ള വെള്ളങ്ങളിലൊക്കെ പോയി നീന്തൽ പഠിക്കാൻ നിന്നുകഴിഞ്ഞാൽ നടക്കുന്നതല്ല കാരണം അവര് അത് ചിലപ്പോള് ഒഴുക്കിൽപ്പെടാൻ സാധ്യത കൂടുതലാണ് ആഴം കൂടിയ സലങ്ങളിൽ പോയി നീന്തൽ പഠിക്കുന്നതും കുറച്ച് അപകടം നിറഞ്ഞൊരു കാര്യമാണ് അത് വലിയ സാഹസികം തന്നെയായിരിക്കും അപ്പോള് കടലിലൊന്നും കടലിലെ ആറിലൊന്നും നീന്താതിരിക്കുന്നതായിരിക്കും ബെറ്റര് ഞങ്ങള് നല്ലൊരു നീന്തൽ പഠിച്ച വ്യക്തിയോടു കൂടി വല്ല പൂളിലോ അല്ലെങ്കിലൊരു കുളത്തിലോ പോയി നീന്തുന്നതായിരിക്കും നല്ലത് വലിയ ആഴമൊന്നും ഇല്ലാത്തൊരു കുളത്തിൽ ഒക്കെ പോയി നീന്തൽ പഠിക്കുന്നതായിരിക്കും ബെറ്റർ നല്ല ആഴമൊക്കെ ഉള്ള കുളമാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഈ നീന്തൽ പഠിക്കുന്ന വ്യക്തിക്ക് നീന്താനറിയത്തില്ല പുള്ളി നീന്തി പഠിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ അപ്പോള് പുള്ളിക്ക് നീന്തലിനെ എന്താണ് നീന്തൽ പഠിക്കണമെന്നാണ് പുള്ളി ഓർക്കാ അപ്പോള് നീന്തൽ പഠിക്കാൻ ചിലപ്പോള് സാധിച്ചെന്നിരിക്കത്തില്ല അപ്പോള് നല്ല ആഴമൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോള് മുങ്ങിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോള് നീന്തൽ പഠിക്കുന്നുമ്പോള് നല്ലൊരു സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് നീന്തൽ പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ പറയുന്നു അപ്പോള് നീന്തൽ നീന്തൽ പഠിക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള നീന്തലുണ്ട് മലര്ന്നു നീന്തൽ കിടന്നു നീന്തൽ അങ്ങനെ പല നീന്തലുമുണ്ട് അതൊന്നും ട്രൈ ചെയ്യാണ്ട് ഒറ്റതിൽ പഠിച്ചതിനുശേഷം പിന്നെ വേണമെങ്കിൽ നല്ലൊരെക്സ്പേര്ട്ടായതിനു ശേഷം നീന്തല് അങ്ങനെ പല സാഹസികങ്ങൾ രൂപപ്പെടുത്തുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോള് നീന്തൽ പഠിക്കുന്ന കുട്ടികൾ ഇത്രയും ശ്രദ്ധിക്കുന്നതായിരിക്കും നല്ലത്